ഞമ്മ ഇപ്പോൾ ഗ്രാമപ്രദേശത്തിൽ ബിസ്സിനസ്സ്കാരനങ്ങ് തുടങ്ങാന് വേണ്ടി തീരുമാനിച്ചീനെങ്കി നമുക്കത് നടക്കില്ല കാരണം എന്നുച്ചെല്ലെങ്കിൽ നമ്മളുടെ ശിട്ടി പോലെയല്ല ഗ്രാമം ഗ്രാമത്തിലല്ലെങ്കിൽ ഇപ്പോൾ ഞമ്മ ഒരു ബിസിനസ്സ് ഞമ്മ തുടങ്ങി തുടങ്ങിയപ്പോൾ സ്ടാപ്പിൽ നമ്മ തുടങ്ങിയങ്കെ ചെല്ലെങ്കില് അതിന്റെ ഉള്ളിലൊക്കെ ആരും വരില്ല എന്ത് ചെല്ലെങ്കില് ഞമ്മക്ക് വീ ടൗണിലൊക്കെ പോകാന് ആകെ പത്തു മിനിറ്റുള്ളെങ്കെ അള്ളിക്ക് അതിന്റെ ഉള്ളിലൊക്കെ പോകണമെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ വേണം അപ്പോൾ ഞമ്മ ഇരുവറുപ്പേടെ സാധനം ഉണ്ടെങ്കിൽ അൻപത് റുപ്യാ പെട്രോളിനങ്ങ് ചിലവു വിട്ടിട്ട് ആരെങ്ങാനും അതിന്റെ ഉള്ളിലേക്ക് പോകുമോ നിങ്ങള്ക്ക് തോന്നുന്നോ ആരെങ്കിലും പോവല്ലീ അപ്പോൾ അതുപോലെ പിന്നെ അള്ളിയിൽ പിന്നങ്ങാട് ക അള്ളിയിൽ പിന്നെ ബിസിനസ് നടക്കും എങ്ങനത്തെ ഈ കൃഷി ഈ അഗ്രിക്കള്ച്ചർ പിന്നെയീ ഫാമിങ് അങ്ങനത്തിങ്ങനത്തെ അതെല്ലാം ഈ അള്ളിയിൽ നടക്കുവ അതല്ലാതെ ബേറൊന്നും ഈ അള്ളിയിൽ നടക്കില്ല പിന്നെയീ അള്ളിയിൽ നടക്കുന്ന് ഉണ്ടെങ്കന്നെ ഇങ്ങനത്തെ കോഴി ഫാം പിന്നെ പച്ചക്കറിന്റെ തോട്ടോ പിന്നെ അടക്കേന്റെ തോട്ടോ അങ്ങനെത്തിങ്ങനത്തെയല്ലാത്തെ ബേറെന്താ ഈ അള്ളിയിൽ നടക്കില്ല പിന്നെ ഞമ്മക്കീ ടൗണിൽ കിട്ടുന്ന സാധനമൊക്കെയുണ്ടള്ളിക്കാരന് തുടങ്ങും പിന്നെ അള്ളിയിൽ തുടങ്ങിയെങ്കില് ബിങ്ങനെ കച്ചവടമൊന്നും ഉണ്ടാകില്ല ഞമ്മളെ കാലിന്റെ അടിയിൽ കിട്ടുന്ന സാധനം അള്ളിക്ക് പോയിട്ട് ഞമ്മയൊരു അഞ്ഞൂറ് പോയിട്ട് തിരുമ്മേ കണ്ടത് അള്ളിക്ക് വന്ന് നാലായിരം രൂപ അങ്ങ് പോകും അപ്പോൾ ബെസ്റ്റ് യേത് ഞമ്മക്ക് നല്ല തീരുമാനം ഏതു അള്ളില് ചില പിന്നെ അള്ളിയിൽ ഞമ്മക്ക് ബിസിനസ് തുടങ്ങിയാലുള്ള നല്ല ഗുണങ്ങള് എന്തല്ല ഊടാ തുടങ്ങിയങ്ങൂട പൊടിയും കിടിയും എല്ലാം കൂടുന്നത് അള്ളിയിലതിന്റെ ഉള്ളിൽ തുടങ്ങിയെന്നുവെച്ചാൽ എങ്കെ അള്ളിയിൽ നമുക്കിതില്ല എന്ത് കഥയില്ലെങ്കിലവിടെ പൊടി അതുയിതു എന്തുമില്ല അള്ളിയിൽ നമ്മുക്കനീ ടരി തുടങ്ങിയിട്ട് പോകാം മീന്സ് ഞമ്മക്കൊരു ആ തുടങ്ങിയ സ്ഥാപനം പെടുക്കാലങ്ങലാവൽ ഇങ്ങലാവൽ എന്താവലാ നമ്മക്ക് നല്ലയിൽ തുടങ്ങിയിട്ട് മുന്നോട്ടു കൊണ്ടു പോകാം അതാണ് അള്ളീന്റെ ഒരു നല്ലൊരു പ്രത്യേകത പിന്നയിനങ്ങോട്ടപ്പുറെ പിന്നെ തുടങ്ങണമെങ്കി ഞമ്മക്ക് പിന്നെ ഊട് തുടങ്ങണം ഓടാന്ചിലെങ്കില് കുറച്ചിപ്പറം അള്ളീന്റെ അള്ളീക്കകത്തു നിന്ന് കുറച്ചിപ്പറം പിന്നെ അള്ളിയിൽ തുടങ്ങിയെങ്കില് അള്ളിയിലൂടെയിപ്പോൾ തുടങ്ങി അപ്പുറത്തൊരു പീടിക തുടങ്ങി നഷ്ടം ചെങ്കി പൂക്ക നഷ്ടം ആരും പോയില്ല തുടങ്ങിയൊയനെ നഷ്ടം തുടങ്ങിയതല്ലെങ്കില് അപ്പളെ ബന്ധു ആയിട്ട് പോകും അതിൽ ഭയങ്കരമൊരു കഷ്ടം പിന്നാ അള്ളിയിൽ പിന്നെ തുടങ്ങിയാവൊള്ള മെയിനൊരു ബെനിഫിറ്റ് എന്തെല്ലങ്കിൽ അള്ളിയിൽ ബെസ്റ്റ് പച്ചക്കറികൾ തുടങ്ങൽ പച്ചക്കറീനെല്ലാം കുറേ സ്ഥലമുണ്ടാകും ഒരാള്ക്ക് പത്തു നാൽപ്പതൻപത് ഐക്കറിലുണ്ടാകും അപ്പോൾ അവിടെ നമുക്കീ പച്ചക്കറീന്റെയെല്ലാം തുടങ്ങിയെങ്കിൽ നമുക്ക് ഈ അള്ളിയിൽ നല്ല ഉപകാരപ്പെടും പിന്നെ അള്ളീ സ്ഥലത്ത് ഞമ്മക്ക് മറ്റേ ഇതെല്ലാം നല്ലയുണ്ടാക്കാന് പറ്റും എന്തല്ലെങ്കിൽ നമ്മക്കീ കഞ്ചാവ് തോട്ടം അങ്ങിനെത്തെയെല്ലാം ഭയങ്കര ഉണ്ടാക്കാന് പറ്റിയൊരു സ്ഥലമാണ് മറ്റേ അള്ളി പിന്നെ അള്ളീ അള്ളിയിൽ കുറേ സ്ഥലമുണ്ട് പൈവെളിക പിന്നെ ബായാറു ഉജമ്പകം ന്ത് കുറേയെന്തെല്ലം ഉണ്ട് പിന്നെ അള്ളിച്ചെല്ലെങ്കിൽ അള്ളീയങ്കു കണ്ടിടത്തോളം അള്ളിയിൽ മനുസ്സന്മാരും കുറവും മനുസ്സന്മാരും കുറവും പോരേയേതെങ്കില് കാണുമ്പോൾ ബെജാറാകുന്നു ഏതോവൊരു ഭൂതകാലത്തിലേക്ക് പോയ പോലെയാന്നു അള്ളിക്ക് പോയെങ്കില് പിന്നെ അള്ളീന്റെ മെയിൻ പ്രശ്നമെന്നു വെച്ചെല്ലെങ്കിൽ അള്ളിയിൽ മറ്റേയിതില്ല എന്തില്ലെങ്കിൽ ഒരു ഫസിലിറ്റിയില്ല ഇപ്പോൾ പെട്ടെന്ന് ഞമ്മക്കൊന്നു എന്നങ്കൊന്നായവിടുത്തെ നാട്ടുകാര്ക്ക് അവിടെയെന്നെങ്കിൽ തുടങ്ങാന് തുടങ്ങിയിട്ടുള്ള എന്നാലും ഓര്ക്കൊരു ഹോസ്പിറ്റലില് കയറാന് വേണ്ടി തീരുമാനിച്ച് ഹോസ്പിറ്റലില് കയറാണ്ടി ബേം ബേഗം കഴിയുമോ കഴിയുവോന്തേലെങ്കിൽ ഹോസ്പിറ്റലില് കണ്ടിട്ടോറു പെട്ടെന്നൊന്നു പോകാന് കഴിയുമോ ഇല്ലാ അത് അത്രയൊരു കഷ്ടപ്പെട്ടിട്ടാണ് അള്ളിയിൽ ഒരു എന്തെങ്കിയൊന്നു സ്റ്റാര്ട്ടാക്കാന് വേണ്ടിയൊന്ന് തീരുമാനിച്ചീന്ന പിന്നെയീ അള്ളിയിലങ്ങോട്ട് ബെസ്റ്റ് അള്ളിയിൽ ബെസ്റ്റ് നേരെ ക്ളൈമറ്റ് ക്ളൈമറ്റ് നല്ല ബസ്റ്റാ അള്ളിയിൽ അള്ളിയിൽ ക്ളൈമറ്റ് ബെസ്റ്റല്ലെങ്കിൽ അവിടെ നമുക്ക് നാച്ചുറായിട്ട് എന്തെങ്കി ഇങ്ങനത്തെയെല്ലാം ഭയങ്കര നടന്നിട്ട് പോകാം അതാണ് അള്ളീന്റെയൊരു പ്രത്യേകത ബേറൊന്തുമല്ല കാറിൽ ബൈ